എനിക്ക് കോഴിയും താറാവും ഉണ്ട് അം ഇരുപത്തഞ്ച് കോഴിയും അൻപത് താറാവുമുണ്ടെ ഞാൻ പത്തു കോഴി അഞ്ച് കോഴി തുടങ്ങിയതാണ് ഇപ്പോൾ ഇരുപത്തഞ്ച് കോഴിയുണ്ട് അവ മുട്ടയിടുന്നതും മുട്ട ഇടാത്തതുമുണ്ട് പിന്നെ അവയ്ക്ക് നല്ലവണ്ണം തീറ്റ കൊടുക്കുന്നുണ്ട് അവയെ നല്ലവണ്ണം നോക്കുന്നുണ്ട് കോഴിയെ ആഴ്ചയിൽ ഞങ്ങളിപ്പോൾ ആ മുട്ട കൊണ്ടാണ് ഞങ്ങളുടെ കുറച്ചൊക്കെ എനിക്കു പറ്റും വരുമാനത്തിൽ ഞങ്ങളുടെ അടുത്തുള്ളവർക്കെല്ലാം കൊടുക്കും അവർക്ക് ഇഷ്ടമാണ് ഞങ്ങൾ നാടൻ മുട്ട തന്നെയാണ് വരവിനെക്കാളും പാണ്ടിമുട്ടയേക്കാളൊക്കെ നല്ലത് നമ്മുടെ ഈ മുട്ടയാണ് അതുപോലെതന്നെ ഇറച്ചി ആണെങ്കിലും അങ്ങനെ താറാവ് അതുപോലെ തന്നെ താറാവ് മുട്ടയ്ക്ക് വില കൂടുതൽ ഉണ്ട് കോഴിമുട്ടയെക്കാളും പിള്ളേർക്കാണെങ്കിലും ഈ മുട്ട കൊടുക്കുന്നതു നല്ലതാണ് പിന്നെ കൂടും ഒക്കെ വൃത്തിയാക്കും എല്ലാ ദിവസവും വൃത്തിയാക്കിയിടും ഇനിയിപ്പം കോഴികളെയൊക്കെ കൂടുതൽ വളർത്തണമെന്ന് ആഗ്രഹമുണ്ട് പിള്ളേർക്കാണെങ്കിലും ഇഷ്ടമാണ് കോഴിയെയും താറാവിനെയൊക്കെ ഇഷ്ടമാണ് വെള്ളം വെള്ളത്തിനകത്തെ താറാവിനെ വളർത്തുന്നു പിള്ളേരാണെങ്കിലും വൈകീട്ട് വന്ന് ഭർത്താവും പിള്ളേരുമൊക്കെ എന്നെ സഹായിക്കും പിന്നെ കൂടും ഒക്കെ വൃത്തിയാക്കിയിടും കോഴി കാഷ്ടമാണെങ്കിലും വളമൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് അത് ഒരു വളത്തിൻ്റെ ഒരു വരുമാനമുണ്ട്

കോഴി മുട്ടയും കോഴികളും പൂവനും പിടയൊക്കെയുണ്ട് പിടക്കോഴികളും പൂവനും ഉണ്ട് പൂവനെയും വിൽക്കും അതിൽ നിന്നും ലാഭം കിട്ടുന്നുണ്ട് താറാവു അതു പോലെ തന്നെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അതിനെ നോക്കുന്നുണ്ട് ഇനി മുന്നോട്ടു പോകുവാണെങ്കിലും കോഴിയെ കൂടുതൽ വളർത്താൻ നോക്കുന്നുണ്ട് സാഹചര്യം അനുവദിക്കുമെങ്കിൽ അതുപോലെ ചെയ്യും കോഴി കാഷ്ടവും കോഴി മുട്ടയും മുട്ടക്ക് നല്ല മാർക്കറ്റിലാണെങ്കിലും നല്ല വിലയാണെ ഞങ്ങൾ അടുത്തുള്ള വീടുകളിലും കടയിലും കൊടുക്കുന്നുണ്ട് മുട്ട മുട്ട കൊണ്ടാണ് മുട്ടയാണേൽ നമുക്കു നല്ല പോഷകാഹാരം ഉള്ളതാണല്ലോ അതുകൊണ്ട് പിന്നെയും നമുക്ക് കോഴിയെ വളത്തണമെന്നുണ്ട്